നമ്മുടെ സംസ്കാരത്തില് ഉള്ള ഒരു പ്രധാന തൊഴിലായിരുന്നു കൊല്ലൻ അധവാ ഈ ആയുധങ്ങളൊക്കെ നിർമ്മിക്കുന്ന ആൾക്കാര് അത് നമ്മുടെ പൂർവ്വികര് അങ്ങനെ അത് ഉപ അത് വെച്ച് ഉപജീവനം നടത്തിയിട്ടുണ്ട് പക്ഷേ പുതിയ തലമുറ എന്തെന്ന് വെച്ച് കഴിഞ്ഞാലത് അത് അതിലൊര് ഒത്തിരി കഷ്ടപ്പാടുകളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടവണം പുതുതലമുറ ഈ ഒര് ഇത് പിന്തുടരാനായിട്ട് അവരങ്ങ് തയ്യാറാവണില്ല അവര് എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാല് അവര് അവര് ഈ വിദ്യാഭ്യാസത്തില് വിദ്യാഭ്യാസത്തിലൂടെ ഉന്നതിയിലെത്താനായിട്ടാണ് അവര് നോക്കുന്നത് പുറം രാജ്യങ്ങളിലേക്ക് പോകുവാനും കൂടുതൽ പൈസ സമ്പാദിക്കാനും ഒക്കെയാണ് അവര് നോക്കുന്നത് അങ്ങനെ ആ ഒര് പ്രധാന സംസ്കാര ആ സംസ്കാരത്തിൻ്റെ തൊഴിൽ തന്നെയായിരുന്ന ഈ കൊല്ലൻ എന്ന് പറയുന്നൊരു പണി അത് അവര് മറക്കുകയും ചെയ്തു അതിനെ അതിനെ വിട്ട് പോകുകയും ചെയ്തു